ആശയങ്ങൾ കണ്ടെത്താർ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാന് ചിലപ്പോൾ ആശയങ്ങളൊക്കെ കണ്ടെത്താന് ശ്രമിക്കാറുണ്ട് ചില ചില കാര്യങ്ങള് ടോപ്പിക്സ് ഒക്കെ എടുത്തു ഞാനെഴുതാന് ശ്രമിക്കും പക്ഷേ ചിലയിടത്തു പോയിയിപ്പം നമ്മളിപ്പം ഒരു യാത്രയൊക്കെക്കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണേത്തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മസി മനസ്സിൽ പതിഞ്ഞു കിടക്കും അപ്പം ആ കാര്യത്തേക്കുറിച്ച് എഴുതാനായിരിക്കും ഇനിയും കൂടുതലും ആഗ്രഹവും ഇതും തോന്നാറ് അപ്പം അതെഴുതുമ്പോഴാണ് എനിക്കു കൂടുതലും കൂടുതലും ഫീൽ കിട്ടുന്നത് പിന്നെ മനസ്സ് ഒരു കാര്യം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്നിടം വരെ എനിക്കതിനേക്കുറിച്ചായിരിക്കും ചിന്തകൾ മൊത്തം ഇപ്പം ഞാന് കൂടുതലും പ്രകൃതിയുടെ എല്ലാം പ്രകൃതിയാണേല് സമൂഹം ആണെങ്കിലും സംസ്കാരം സര്ക്കാർ പക്ഷേ മിക്ക കാര്യങ്ങളേക്കുറിച്ചും ഞാൻ എഴുതാണ് കാരണം ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് അതിനകത്തു നിന്നോരോ ടോപ്പിക്ക് എടുത്തെഴുതുമ്പോഴാണെങ്കിലും മേക്കും എഴുതാന് പറ്റാറുണ്ട് കൂടുതൽ എനിക്ക് പ്രകൃതിയെക്കുറിച്ച് എഴുതാനാണിഷ്ടം ഞാന് ഒരു പ്രകൃതിരമേ ഇത് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് സ്ഥലത്തൊക്കെ ഇരുന്ന് എഴുതുവാണെ എനിക്ക് പ്രകൃതിയെക്കുറിച്ചെഴുതാനാണ് എപ്പോഴും ഇഷ്ടം അതുമാത്രമല്ലാ ഞാന് കൂടുതലും ഇപ്പം ന്യൂസ് പേപ്പർ ഒക്കെ നൂ യൂസ് ചെയ്തതാണ് എഴുതുന്നത് എങ്കിൽ അതിനകത്ത് സര്ക്കാരിനേക്കുറിച്ചും അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാന് കാണാറുണ്ട് അപ്പം അതും എഴുതാറുണ്ട് അപ്പം എഴുതുമ്പോഴത്തേക്കും ഞാന് പ്രത്യേകമായിട്ടൊരു സബ്ജക്റ്റോ അങ്ങനെ ആശയങ്ങളോ ഒന്നും കണ്ടെത്താറില്ലാ എനിക്ക് മനസ്സിലാ സമയത്തു വരുന്ന ആശയങ്ങൾ എനിക്കു തോന്നുന്നത് ഞാനെഴുതും എന്നുവെച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം മനസ്സിലെന്തിനോടാണോ ആഗ്രഹം എന്റെ മനസ്സിലെന്താണോ പതിഞ്ഞു കിടക്കുന്നത് അതെഴുതാനാണ് ഞാന് കൂടുതലും ടൈം കണ്ടെത്താറ് അതുമല്ലാ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഒരു ഇതും നോക്കണമല്ലോ നമ്മുടെ മനസ്സ് ഏതു മൂഡിലാണെന്നൊക്കെ നല്ലതാണോ എഴുതാനായിട്ടു പറ്റിയ സമയമാണോ എന്നൊക്കെ നോക്കി അതിനോടനുസരിച്ചാണ് അതിനോട് ഇതായിട്ടാണ് ഞാനെപ്പോഴും എഴുതാൻ ശ്രമിക്കാറ് കൂടുതൽ എനിക്ക് എഴുതാൻ പ്രകൃതിയുമായിട്ടു ബന്ധപ്പെട്ട് എഴുതുന്നതിനോ കൂടുതലും ഇഷ്ടം